ഞങ്ങളുടെ പ്രദേശത്ത് അങ്ങനെ ഒരു ആഘോഷമൊന്നും ഇല്ല ഗോത്രകലകളെ പറ്റി ഒന്ന് സൂക്ഷിപ്പിക്കുന്നതായിട്ട് എനിക്കറിയില്ല അപ്പോള് ഇങ്ങനെ ബസ്സിലൊക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ ദൂരെ ഒക്കെ പതിനഞ്ച് ഞങ്ങളുടെ ഇവിടെനിന്ന് പതിനഞ്ച് കിലോമീറ്ററോളം ദൂരെ ഒരു അമ്പലത്തിൽ ഇങ്ങനെ പടയണി ഗോത്രകലയിൽ പെടുന്നൊരു പടയണി എന്ന് പറഞ്ഞൊരു പൂരം നടത്തുന്നുണ്ട് അത് ഈ ഗോത്രകലകളെ ആചരിക്കുന്നൊരു അമ്പലമായിട്ടാണ് അറിയുന്നത് അതിന് വർഷങ്ങളോളം അതിന് പഴക്കങ്ങൾ ഉണ്ട് അതിന് ഇങ്ങനെയൊന്ന് നിർമിച്ച് വാഴക്കച്ചിയുംകൊണ്ടൊക്കെ അതിന് ഒരു രൂപം നൽകി അതിനെ പത്തുദിവസത്തോളം അമ്പലത്തിൽ വച്ച് പല കരക്കാരിങ്ങനെ ഉണ്ടാക്കി അമ്പലത്തിൽ വച്ച് അതിനുവേണ്ടി പ്രത്യേകം പൂജയൊക്കെ നടത്തി അതിനെ ഇത് പൂജിച്ച് അതിനെ പത്താമത്തെ ദിവസം അത് കത്തിച്ച് കളയുന്നു ഈ ഗോത്ര ഇങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പോള് മുത്തശ്ശിക്കഥ പോലെ കേട്ടിട്ടേ ഉള്ളു അല്ലാതെ വേറെ ഇതിനെപ്പറ്റി എനിക്ക് വിശദമായിട്ട് ഒന്നും അറിയില്ല ഞങ്ങളുടെ ഇത് അവിടെ ആ സ്ഥലത്ത് മാത്രം ഇതിനെ ഇങ്ങനെ സൂക്ഷിക്കുന്നെന്ന് കേട്ടിട്ടുണ്ട് വർഷങ്ങളോളം ഇത് നൂറ്റാണ്ടുകളായി ഇത് സൂക്ഷിക്കാൻ തുടങ്ങിട്ട് എനിക്ക് ഇങ്ങനെ മുത്തശ്ശിക്കഥ പോലെ കേട്ടു കേൾവി മാത്രമേ ഉള്ളു